ഞങ്ങളുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ കൈത്തറി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ അവരുടെ സ്വന്തം നെയ്ത്തു ശാലകളിൽ നെയ്യുന്ന കേരള സെറ്റ് സാരി സെറ്റ് സാരി സെറ്റുമുണ്ട് സാരി കല്ല്യാണ പട്ടുസാരികൾ മുതലായവ നെയ്യുന്നും ഉണ്ട് മിക്ക സ്ഥലങ്ങളിൽ നിന്നും കല്ല്യാണത്തിന് ആവശ്യമായുള്ള മന്ത്രകോടികൾ ഈ നെയ്ത്തു ശാലകളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും പറഞ്ഞ് ചെയ്യിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ ആ അവരുടെ ആ ഒരു ഫിനിഷിംഗ് വർക്ക് എന്നു പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്ന രീതിതന്നെ അവർ നമുക്ക് ചെയ്തു തരാറുണ്ട് പിന്നെ കേരള സാരി സെറ്റ് സാരി എന്നൊക്കെ പറയുമ്പോൾ ഓരോ മാസത്തിലും ഇപ്പോൾ വിഷുവിന് ഓണത്തിന് അതിന്റേതായിട്ടുള്ള രീതിയിൽ അവർ ആ നെയ്ത്തു വർക്ക് ചെയ്തു തരും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ലഭിക്കാറുമുണ്ട് പഷെ ഞങ്ങൾ ആ ഒരു രീതിയിൽ ശ്രമിച്ചിട്ടില്ല അവർക്ക് കൈത്തറി അതു പരമ്പരാഗതമായി ചെയ്യുന്നവർ മാത്രം അതു ചെയ്യുന്ന കണ്ടിട്ടുള്ളു